ആ ഇത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് അല്ലേ ഞാനിവിടെ പിന്നെ ഇവിടെ മാവൂര് റോട്ടില് നിന്നാണ് വിളിക്കുന്നത് പിന്നെ ഇവിടെ ഒരു അടുത്ത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ കള്ളൻ കയറിയിട്ടുണ്ടായിരുന്നു ഇല്ല അവർ ഒരു മാസത്തേക്ക് പിന്നെ അവിടെയൊരു അച്ഛനും അമ്മായുമായിരുന്നു താമസിക്കുന്നത് അപ്പോൾ അവർ പിന്നെ മകന് ബാംഗ്ലൂരായിരുന്നു ഒരു വർക്കി ഒരു വർക്ക് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ അപ്പോൾ പിന്നെ ഇവർ അവിടെ പോയി താമസി ഇപ്പോൾ ഒരു മാസമായി പോയിട്ട് അപ്പോൾ ഇവർ എന്നെ എൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് അപ്പോൾ ഒരു മാസമായി പോയിട്ട് അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ പിന്നെ രാത്രിയിൽ ഞാൻ അപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് വയ്ക്കാറുണ്ടായിരുനു പിന്നെ ഇന്നലെ രാത്രി ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഒരു ഒരു വൈക് ഒരു ഉച്ച ഒരു രണ്ടര ഒരു പുലർച്ചക്കൊരു രണ്ടരയ്ക്കൊക്ക് ഒക്കെ നോക്കുമ്പോൾ ലൈറ്റ് കാണുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബൾബിന് എന്തെങ്കിലും പറ്റിയതായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ പിന്നെയും പോയി കിടന്നു അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവിടുത്തെ പട്ടി ബോധംകെട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഈ ഡോര് ഒക്കെ പൊളിച്ചിട്ട് അകത്ത് ഫുള് വാരി വലിച്ചിട്ട് വാരി വലിച്ചിട്ടിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണെന്ന് അറി ആരോ കള്ളൻ കള്ളൻ കയറിയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണ് പോയതെന്നൊന്നും അറിയില്ല ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് വൈകുന്നേരം എത്തുമെന്നാണ് പറഞ്ഞത് അവർ പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെയാണ് വിളിച്ചത് അപ്പോൾ പിന്നെ കുറച്ചു താമസം എടുക്കും എന്ന് പറഞ്ഞു ബാംഗ്ലൂർ അല്ലേ അപ്പോൾ പിന്നെ അത് ഒന്ന് പോലിസ് സ്റ്റേഷനില് വിളിച്ചു അറിയിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ നിങ്ങൾക്ക് ആ ആ സൗണ്ട് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല പക്ഷേ കുര പട്ടി കുരയ്ക്കുന്നതായിട്ട് കേട്ടു അപ്പോൾ പിന്നെ പിന്നെ കേ പട്ടി കുരയ്ക്കുന്നത് കേൾക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പം ഒന്നും ഇല്ല എന്ന് അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു രണ്ടര ആ സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനും പേടിച്ചിട്ട് ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ കുഴപ്പം ഒന്നും കണ്ടിട്ടില്ല ആരും കയറിയത് പോലെ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ ബാക്ക് വശത്തെ ഡോർ ആണ് പൊളിച്ച് കാണുന്നത് ബാക്ക് വശത്തെ ഡോർ പൊളിച്ചിട്ടാണ് അകത്ത് കയറി കാണുന്നത് പിന്നെ സൗണ്ട് ഒന്നും കേട്ടില്ല പിന്നെ അതിൻ്റെ ഈ എൻ്റെ അപ്പുറത്തെ വീടാണ് പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും വേറെ വീടൊന്നുമില്ല പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടേ ഉള്ളൂ പിന്നെ അവിടെയും ഒരു അമ്മയും അച്ഛനും ആണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഒരു സമയത്താരും വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് ഇപ്പോൾ നോക്കുമ്പോൾ ആരോ കയറിയതായിട്ടാണ് കാണുന്നത് എന്ത് എന്തെങ്കിലും പോയോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതാണ് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത് ആ ആ വീട്ടിലത്തെ പട്ടി തന്നെ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു കൂ ഒരു കൂട്ടിൽ അല്ല ഇങ്ങനെ ഡോർ തുറന്നിട്ട് കൂട്ടിൻ്റെ അടുത്ത ഇങ്ങനെ എപ്പോഴും ആളില്ലാത്തതുകൊണ്ട് പുറത്താക്കിയതാണ് അപ്പോൾ ആരെങ്കിലും വന്നാൽ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് വിട്ടത് കൂട്ടിൽ കയറ്റാത്തത് അപ്പോൾ പിന്നെ ഇതിപ്പോൾ മാവൂർ റോട്ടിൽ വരുന്ന ഒരു മൂന്നാമത്തെ വീടാണ് ഒരു ഇടത് വശത്തൊരു ചെറിയൊരു റോഡ് ഉണ്ട് അതിലൂടെ കയറിയാൽ ആ ഒരു വീട്ടിലാണ് കയറിയത് ആ ഗേറ്റും മതിലോക്കെ ഉണ്ട് ആ ആ ഗേ അല്ല ഗേറ്റ് ഒക്കെ അടച്ചിട്ടാണ് ഞാനിപ്പോൾ ലൈറ്റും ഇട്ട് ഗേറ്റ് അടച്ചിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് പെട്ടെന്ന് എത്തുമോ ഇപ്പോൾ ഒന്ന് ആഹ് നിങ്ങൾ വന്നിട്ട് ഒന്ന് നോക്കിയാൽ ഒരു എന്താണെന്ന് അറിയാമല്ലോ ആ മാവൂർ റോട്ടിലെ ഇടത് വശത്ത് പിന്നെ മൂന്നാമത്തെ വീട് ആ എന്നാൽ ഓക്കെ